ചരിത്രപ്രധാന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് മാപ്പിള ലഹളയാണ് അതായത് ഒരു കാലത്ത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഭൂമി വേടിക്കാനോ അല്ലെങ്കിൽ അവർ പണിയെടുക്കുന്ന സമ്പത്തിലോ അവകാശമുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ജന്മിത്ത്വത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാപ്പിള ലഹള എന്ന് പറയുന്ന ആ ഒരു കലാപം ഉണ്ടായത് തന്നെ അതാണ് അതിൻ്റെ പ്രധാന സ്ഥലമെന്ന് പറയുന്നത് മലപ്പുറം മലബാർ മേഖലയിൽ നിന്നായിരുന്നു അതാണ് ഏറ്റവും ചരിത്രപ്രധാനമായിട്ടുള്ള സംഭവം അതിൽ സംഭാവന നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ പീ അബ്ദു സാഹിബ് എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ അങ്കമായിരുന്നു അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും അദ്ദേഹം ആകർഷണായിട്ടുണ്ട് ഇപ്പം മാപ്പിള ലഹളയാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും ചരിത്ര പ്രധാനമായിട്ടുള്ള സംഭവം